നെയ്ത്തും തുന്നലും നമ്മള് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മള് തുന്നലെന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രം തുന്നിയെടുക്കാനും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സമ്പാദിക്കാനും വേണ്ടിയാണ് നമ്മള് തുന്നല് പഠിക്കുന്നത് കാരണം തുന്നല് ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു പെൺകുട്ടികൾ തീർത്തും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ ആശ്രയിക്കാൻ പോകുമ്പോൾ നമ്മുടെ പണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നമുക്കുള്ള പണം കയ്യിൽ നിന്ന് തികയാതെ വരികയാണ് ചെയ്യുന്നത് സ്വന്തമായിട്ട് തുന്നലറിയാവുന്ന ഒരാളാണെങ്കില് നമുക്ക് ഇത് പഠിക്കുന്നതിന് ഇത് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് വരുമാനവും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മള് കാരണം ഈ നെയ്ത്തൊക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞാല് നെയ്ത്തും തുന്നലും പഠിക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിയുന്ന പെൺകുട്ടികൾ കൂടുതലും അവധിക്കാലങ്ങളിലാണ് ഇതൊക്കെ പഠിക്കാൻ താൽപര്യപ്പെടുന്നത് കാരണം ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഇതിനോടൊക്കെ കൂടുതൽ താല്പര്യമുണ്ട് ഈ നെയ്ത്ത് പഠിക്കുക തുന്നല് പഠിക്കുകയെന്നൊക്കെ പറയുമ്പോള്ത്തന്നെ അതൊരു വലിയൊരു കാര്യമാണ് പണ്ടൊക്കെ നെയ്ത്തും തുന്നലുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും വസ്ത്രം സ്വയം തുന്നിയൊക്കെ ഇട്ടും ഒക്കെ ചെയ്യുമായിരുന്നു ഇന്ന് മറ്റെ കടകളിൽ പോയി പോയിട്ട് വസ്ത്രങ്ങള് വാങ്ങിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഇതൊരു അപരിചിതമായി മാറിയിരിക്കുകയാണ് നെയ്ത്തും തുന്നലും പിന്നെ ഇന്നത്തെ ഇന്ന് ഒത്തിരിയില്ലെങ്കിലും നെയ്ത്തിനോട് താല്പര്യമള്ളവരുമുണ്ട് എന്നാല് തുന്നല് പഠിക്കുന്നതെന്ന് വെച്ചാല് ഇന്ന് മെഷ്യന് ഉപയോഗിച്ചൊക്കെ തുന്നല് പഠിക്കാനായിട്ട് എല്ലാവരും താല്പര്യപ്പെടുന്ന ഒന്നാണ് ഇന്ന് അതിനുള്ള സൗകര്യവും ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാമുണ്ട് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും മാതാപിതാക്കൾ ഒരുക്കിക്കൊടുക്കുന്നുണ്ട് ഇത് അവരുടെ ആവശ്യത്തിന് ആവശ്യാനുസരണത്തിന് ഇഷ്ടത്തിന് തയ്ച്ചിടുകയോ എടുക്കുകയോ ചെയ്യാം അതിന് അവരെ അവരുടെ മാതാപിതാക്കള് സഹായിക്കുന്നുണ്ട് നെയ്ത്തിനോട് തുന്നലിനോട് കൂടുതൽ താല്പര്യമുണ്ടായത് തന്നെ ഈ ഡ്രസ്സുകളൊക്കെ മാറി മാറിയിടാം അങ്ങനെ വരികയാണെങ്കില് നമുക്ക് പുതിയ വസ്ത്രങ്ങള് നെയ്തെടുക്കാം തുണി കൊണ്ടുവരികയാണെങ്കില് തയ്ച്ചെടുക്കാം പുതിയ പുതിയ മാറി മാറിയിടാമെന്നുള്ളത് കൊണ്ടാണ് ഇതിനോട് കൂടുതൽ താൽപര്യം വന്നത്